ആ ഗുഡ് മോർണിംഗ് പറയൂ എന്താണ് പേര് ഓ എന്തായിരുന്നു വന്നത് എന്തായിരുന്നു ആ ആ അപ്പോൾ ഇവിടുത്തെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഒക്കെ അറിയാമല്ലൊ അത്യാവശ്യം പൈസ ഒക്കെ ആകും കാരണം നമുക്ക് ഡൊണെഷൻ ആയിട്ട് ഒര് രണ്ട് ലക്ഷം ആദ്യം വെക്കണം പിന്നെ അതിന് ശേഷം സംഭവം ശരി തന്നെ ആണ് പക്ഷേ ഇവിടെ സ്കൂളിൻ്റെ പ്രോസിജേർസ് അങ്ങനെ ആണ് നമുക്ക് അതിൻ്റെ പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തേലും നിങ്ങള് വല്ല പൊളിറ്റിഷ്നോ ആരെയെങ്കിലും കൊണ്ട് എങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതില് ചെറിയ ഇളവുകള് ഒക്കെ വരുത്താം രണ്ട് ലക്ഷം രൂപ ഫീ ആയിട്ട് ആണ് വരുന്നത് അതില് നിങ്ങൾ ആദ്യം ഡൊണെഷനായിട്ട് വ വൺ ലാക്ക് തരണം ഉം പിന്നെ ഒരു ലക്ഷം ഈ നാല് ഇയറിലും കൂടെ ആയിട്ട് അടച്ചാൽ മതി തീർത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം എന്തിനാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കേരളത്തിലെ കിട്ടാവുന്നതിൽ ഏറ്റവും ഗുഡ് കോളിറ്റി ഉള്ള ക്ലാസ്സ് റൂമുകളാണ് ക്ലാസ്സ് റൂമുകള് എ സി ഉള്ളതാണ് പിന്നെ പ്ലേ ഗ്രൌണ്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് കേരളത്തില് കിട്ടാവുന്നതില് ഏറ്റവും ബെസ്റ്റ് കോളിറ്റി ആണ് നമുക്ക് എന്ത് തരുന്നത് അത് പോലെ തന്നെ ടീച്ചേഴ്സും തന്നെ അവരൊക്കെ ഹൈലി ഗ്രാജുവേറ്റഡ് ആണ് പി ജി ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ലക്ഷം ചിലവാക്കുന്നതിന് ഉള്ള ഒര് ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും പിന്നെ ക്യാംപസ് ഇൻ്റർവ്യു ഒക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് നമ്മള് നിങ്ങൾ പഠിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കില് പറയു പറയു ആ ഹോസ്റ്റൽ സൗകര്യമാണെങ്കിൽ പുറത്താണ് ഫീസ് പുറത്ത് വരും ഏ പുറത്ത് പുറത്ത് വരും അത് ഏകദേശം ഒര് പെർ ഇയറ് ഒര് മുപ്പതിനായിരം രൂപ വരും

ആ ആ ഒര് ഭക്ഷണം എല്ലാം പെടും ഭക്ഷണം ഒക്കെ പെടും ഭക്ഷണം ഒക്കെ ഗുഡ് ക്വാളിറ്റി ആണ് ചിക്കൻ മട്ടൻ ബീഫ് എല്ലാം ഉണ്ടാവും മീന് എല്ലാം ഭഷണം ഉണ്ടാവും നല്ല ഫുഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒക്കെ ആണ് കാര്യങ്ങള് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആലോച്ചിട്ട് ചെയ്യാം ഓക്കെ ഓകെ